എൻ്റെ ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ചിട്ട് റീലുകളോ പ്രൊസച്ചിത്തർ ചിത്രങ്ങളോ ഞാനിതുവരെ എടുത്തിട്ടില്ല കാരണം എൻ്റെ ഫോൺ അതിനനുയോജ്യമായിട്ടുള്ളൊരു ഫോണല്ല വളരെ ക്ലാരിറ്റി കുറവാണ് വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ അതിൻറ്റേതായിട്ടുള്ള ക്ലാരിറ്റി അതിനുണ്ടാവില്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞത് കൊണ്ട് ഞാൻ പൊതുവെ അതിൽ നിന്നും വീഡിയോസൊ അല്ലെങ്കിൽ റീൽസുകളോ ഷോർട്സ് ചിത്രങ്ങളോ ഒന്നും എടുത്ത് ഇതുവരെ എടുത്തിട്ടില്ല എനിക്ക് പൊതുവെ ക്യാമറാ എന്ന് പറയുന്നതിനോട് ഒത്തിരി താത്പര്യം ഉണ്ടെങ്കിലും അതിനുള്ള ഒരു സൗകര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല ഫോണിൻ്റെ കാര്യമായാലും ഫോൺ വളരെ ക്ലാരിറ്റി കുറവായതു കൊണ്ടു തന്നെ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല റീലുകളൊന്നും ഇതുവരെ എടുത്തിട്ടില്ല ഇനി അഥവാ ഇനി ക്യാമ്പസുകളിൽ വരുന്ന സമയത്ത് റീലുകൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് സുഹൃത്തുകളുടെ ഫോണിൽ നിന്ന് എടുത്ത് ഞാൻ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലാതെ സ്വന്തം ഫോണിൽ നിന്നും അത്തരത്തിലുള്ള ഒരു റീലോ ഷോട്ട് ഫിലിമോ ഇതുവരെ എടുത്തിട്ടില്ല അത് എടുത്ത് കഴിഞ്ഞാൽ അതിനെ ക്ലാരിറ്റി കുറയും എന്നുള്ളത് ഉറപ്പാണ് അതു കൊണ്ടു തന്നെ അത്തരത്തിലുള്ള ഒരു ദൗത്യത്തിന് ഇതുവരെയും മുതിർന്നിട്ടില്ല എന്ന് പറയുന്നതാകും സത്യം